ഇവിടെ നമുക്ക് ആറ് ഋതുക്കളാണ് ഉള്ളത് വർഷകാലം വസന്തകാലം ഹേമന്തകാലം ഗ്രീഷ്മകാലം ശരത്ക്കാലം ശിശിരകാലം ഇതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഋതു എന്ന് പറയുന്നത് എന്താണ് ഗ്രീഷ്മകാലമാണ് കാരണം ഗ്രീഷ്മകാലമെന്ന് പറഞ്ഞാൽ നമ്മുടെ വേനൽക്കാലമാണ് അതെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള സമയം ആയതുകൊണ്ടുതന്നെ എന്താണ് പറയുക നല്ല നമുക്ക് പുറത്ത് പോവാൻ എവിടെപ്പോവാനും നമ്മൾ കൺഫ കംഫർട്ട് ആയ ഒരു സീസൺ ആണ് ഈ ഗ്രീഷ്മകാലം എന്ന് പറയുന്നത് കാരണം എന്താണ് പറയുക നല്ല ചൂടുള്ളൊരു കാലമാണ് നല്ലൊരു കാലാവസ്ഥയ്ക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുള്ള ഒരു സീസൺ ആണ് ഈ ഗ്രീഷ്മകാലമെന്ന് പറയുന്നത് നമുക്ക് പുറത്ത് പോവാനാണെങ്കിൽ തന്നെ നല്ല കംഫർട്ട് ആയിട്ട് ഒരു ഇതും ഇല്ലാണ്ട് നമുക്ക് പോവാൻ പറ്റും ആ സമയത്തൊക്കെ ആണെങ്കിൽ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേനും എന്താണ് പറയുക നമുക്ക് ഫുൾ വെള്ളത്തിലേക്കൊക്കെയാണ് ചളിയിലേക്കൊക്കെയാണ് ചവിട്ടി പോവേണ്ടി വരും അതിലെക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഗ്രീഷ്മകാലമാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഗ്രീഷ്മകാലം തന്നെയാണ് കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പറയുക ഒന്നും പേടിക്കണ്ട നമുക്ക് നല്ല നല്ല ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് നല്ല സുഖമായിട്ട് പുറത്തൊക്കെ പോവണമെങ്കിൽ നല്ല സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റുന്നൊരു നല്ലൊരു അടിപൊളി കാലമാണ് ഈ ഗ്രീഷ്മകാലം എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ഗ്രീഷ്മകാലമാണ്